നിലവിലെ ഒരു കാലഘട്ടമനുസരിച്ച് ലോകത്തെല്ലാവർക്കും തിരക്കാണ് ആ തിരക്ക് സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു തളർച്ചയിലേക്ക് അവരെ കൊണ്ടുപോവും അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ശാരീരികമായിട്ടുള്ള ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെടുക കളികൾ ഉദാഹരണം ഫുട്ബോള് ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ എന്നിവ പോലെയുള്ള കളികളിൽ ഏർപ്പെടുന്നത് മനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം ഉപകാരപ്പെടും